ഹലോ ആ ഹലോ ഞാനിന്ന് അവിടുന്ന് ബിരിയാണി മേടിച്ച കസ്റ്റമറാണ് നിങ്ങളെ ഞാനൊരു രണ്ട് ഇന്നലെ മേടിച്ചതായിരുന്നു ആ അതെ ബിരിയാണി ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞിരുന്നു അതൊരു രസമില്ലായിരുന്നു ഒരു സുഖമില്ലായിരുന്നു അത് ആത്രേയും എന്താ കഴിക്കാനങ്ങ് അളിഞ്ഞിരിക്കാണ് ചോറൊക്കെ അങ്ങ് ഒത്തിരി വെന്തു പോയി ഒരു സുഖമില്ലായിരുന്നു ഹോം ഡെലിവറി ആയിരുന്നു

ആ അതിങ്ങനെ അന്നേരം നമ്മൾ ഇത്രയും ഇച്ചിരി ലേറ്റ് ആയ ഞങ്ങളെ ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് സാധനം കിട്ടിയത് അന്നേരം ഓൾറെഡി വിശന്നിരിക്കുവായിരുന്നു അന്നേരം ഞങ്ങൾ പെട്ടന്ന് കഴിക്കേം ചെയ്തു പിന്നെ അതിനെക്കുറിച്ച് പിന്നേട് ഒന്നു വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്കിനി ഇതുപോലെ ഒരു ഇതാവുമ്പം ഇങ്ങനെ നിങ്ങളുടെ കസ്റ്റമർ എല്ലാം അവിടെന്ന് മാറി പോവത്തല്ലേ ഉള്ളൂ ഇതേ പോലെ തന്നാൽ കാരണം ഇന്നാൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഞങ്ങൾ ഹോം ഡെലിവറി ചെയ്ത് ചെയ്തപ്പോഴത്തേനും ഞങ്ങൾക്ക് നല്ല ഇതായി കിട്ടി ഞങ്ങൾക്ക് ഫുഡ് ഒരു കുഴപ്പമില്ല അതുകാരണമാണ് ഇപ്രാവശ്യം പിന്നേം ചെയ്തെ അതുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലത്തെ വെറും ചള്ള് ആയിരുന്നു ഒത്തിരി ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ആ ചോറൊക്കെ ഇങ്ങനെ അളിഞ്ഞ് ഒരുമാതിരി ഇരുന്നു കറിയൊന്നും

അവിടുന്ന് തന്നെ മേടിച്ചത് ഞങ്ങൾ ഇതിന് മുൻപ് അവിടുന്ന് മേടിച്ചിട്ടുണ്ട് അത് കാരണമല്ലേ ഞാൻ ഇപ്രാവശ്യം അവിടുന്ന് മേടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ നല്ല ഫുഡ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇപ്രാവശ്യത്തെ ഫുഡ് ഒത്തിരി ചള്ളായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എന്തോ അതൊന്ന് ഒത്തിരി വെന്തു പോയി അത് കാരണം അതങ്ങ് എല്ലാം കുഴഞ്ഞ് കുഴഞ്ഞിരുന്ന്

ആ ഷെഫിനോട് ചോദിച്ചിട്ട് ഇനി കാരര്യം ചോദിച്ചിട്ട് എന്ത് ചെയ്യും നിങ്ങളത് നിങ്ങളിനീം ഇതുപോലെ കൊടുക്കാൻ കൊടുക്കാനാണോ തീരുമാനിക്കുന്നത്

നിങ്ങളിപ്പോഴത്തേ ഞങ്ങൾക്ക് മറുപടി തരും അന്നേരം എപ്പോഴത്തേന് ഞങ്ങൾക്ക് മറുപടി കിട്ടും ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ ഇനീം ഇതുപോലെ മേടിക്കേണ്ടതല്ലേ ഇത് പോലെ സാധനങ്ങൾ കാരണം ഇത് കഴിച്ചിട്ടാണേൽ കൊച്ചിന് അപ്പടി ലൂസ് മോഷനെക്കെ ആയിരുന്നു

പക്ഷേ എന്താന്നറിയത്തില്ല ഇതുപോലെ പറ്റി ഇനി ഇതുപോലെ ആവർത്തിച്ചേക്കരുത് നിങ്ങൾ ഇങ്ങനെയൊന്ന് കാരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഡെലി ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയ്സിനോട് ചോദിച്ചു നോക്ക് നിങ്ങളവരുടെ വേറെ എവിടെന്നെങ്കിലും സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ മറിച്ചുവിൽക്കുന്നുണ്ടോ അങ്ങനെയൊന്ന് ആ അപ്പോൾ നിർത്താവോ ഇനി